കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും ചെറിയൊരു ജില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാമെന്നൊരു ജില്ലയാണ് ആലപ്പുഴ ഞാനൊരു ആലപ്പുഴക്കാരി എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനിതയാണ് വളരെയേറെ പച്ചപ്പുകളായാലും വിനോദത്തിനായി കൂടുതലും പുറത്തുനിന്നുള്ള ആളുകൾ എത്തുന്നത് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലേക്കാണ് ജില്ലയെക്കുറിച്ചുള്ള പല കഥകളും ഐതീഹങ്ങളൊക്കെ ചരിത്രങ്ങൾ ജില്ലയുടെ ചരിത്രങ്ങളൊക്കെ അദ്ധ്യാപകർ വഴിയും മാതാപിതാക്കളും പൂർവികർ വഴിയൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ആയതിനാൽ തന്നെയാണ് ഒരു ആലപ്പുഴക്കാരി എന്നതിൽ ഞാൻ വളരെയേറെ അഭിമാനിതയാണെന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ അതി കെ പാടശേഖരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് വിനോദത്തിനായി വിനോദ യാത്രകൾക്കായി സഞ്ചാരികൾ എത്തിച്ചിരുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ വേമ്പനാട്ട് കായൽ കുട്ടനാട് അതോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ എത്തുന്നവർ കയറാതെ പോകാത്തൊരു സ്ഥലമാണ് എല്ലാവരും കയറാൻ ആഗ്രഹിക്കുന്ന അത് ആലപ്പുഴക്കാരായാലും പുറത്തുനിന്നുള്ളവരായാലും വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് കുട്ടനാട് അവിടുത്തെ കാറ്റും കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടെയുള്ള ധാരാളം എന്തുവാ റിസോർട്ടുകളും ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ കയറണം പോവണം ഫുഡ് കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഷാപ്പ് അതോടൊപ്പംതന്നെ വേമ്പനാട്ട് കായലിൽ പോയി ബോട്ടിങ്ങ് ആളുകൾ ആളുകളെല്ലാം ആദ്യം വന്നിട്ട് ബോട്ടിങ്ങാണ് ആദ്യമേ എടുക്കാനായിട്ട് പോവാനായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ മണിച്ചിത്രത്താഴ് എന്ന സിനിമ വളരെ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് മോഹൻലാൽ എന്ന നടൻ വളരെയേറെ നന്നായി അഭിനയിച്ച് ഇപ്പോഴും മലയാളമനസ്സുകളിൽ നിറഞ്ഞ് നിൽക്കുന്ന സിനിമകളിൽ ഒന്നായ മണിച്ചിത്രതാഴെന്ന സിനിമ ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അറിഞ്ഞ ഞാൻ അറിഞ്ഞിരുന്നത് അറിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അതോടൊപ്പംതന്നെ പല പ്രസിദ്ധരായ നടന്മാരും നടികളും ഒക്കെ ആലപ്പുഴ ജില്ലയിൽ പെട്ടവരാണ് എന്നുള്ളതിൽ ഞാൻ വളരെ ഏറെ അഭിമാനം കൊള്ളുന്നൊരു കാര്യമാണ് വളരെയേറെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ് ധാരാളം ഇപ്പം നൃത്തത്തിലൂടെയാണെങ്കിലും സിനിമകളിലൂടെ അഭിനയങ്ങളിലൂടെ ആണെങ്കിലും പാട്ടുകളിലൂടെയാണെങ്കിലും അങ്ങനെ പലതിലൂടെയും ആലപ്പുഴയിൽ നിന്നും ധാരാളം വ്യക്തികൾക്ക് വ്യക്തികളെ സമ്മാനിക്കുവാൻ ആലപ്പുഴക്കാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ വളരെയേറെ സന്തോഷം അർഹിക്കുന്ന അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗായത്രി അരുൺ എന്ന് പറയുന്ന ഒരു അഭിനേത്രി സീരിയൽ സിനിമകൾ അതോടൊപ്പം യൂട്യൂബിലൊക്കെ വളരെയേറെ നിറഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഗായത്രി അരുൺ പരസ്പരം എന്നൊരു സീരിയലിലൂടെയാണ് പുള്ളിക്കാരി മുന്നിലേക്ക് വന്നത് ആലപ്പുഴ ആലപ്പുഴയിലെ നമ്മുടെ മാതൃഭൂമിയിൽ ആദ്യ ആ ഒരു വ്യക്തി ജോലിയും കൂടെ ചെയ്യാറുണ്ട് അതിൽനിന്നും റിസൈന് ചെയ്താണ് പുള്ളിക്കാരി പരസ്പരം അല്ലെങ്കിൽ മറ്റ് സീരിയലുകളിലേക്കും സിനിമകളിലേക്ക് പോയത് അതിലേറെ പ്രസിദ്ധമായ മറ്റു രണ്ട് വ്യക്തികളാണ് ഫാസിൽ ഫാസിലിൻ്റെ മകൻ മകൻ ഫഹദ് ഫാസിൽ അതോടൊപ്പംതന്നെ നസ്രിയ എന്ന അഭിനേത്രിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ് ആലപ്പുഴക്കാരനാണ് ഫഹദ് ഫാസിൽ അതോടൊപ്പംതന്നെ കുഞ്ചാക്കോ ബോബൻ ബോബൻ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ അവരെല്ലാം ആലപ്പുഴക്കാരാണ് ആലപ്പുഴയിലെ എസ് ഡി എന്ന കോളേജിലാണ് സനാദന ധർമ്മ കോളേജിലാണ് അവർ അവരുടെ വിദ്യാഭ്യാസം സ്വീകരിച്ചിരുന്നത് പഠിച്ചിരുന്നതൊക്കെ എസ് ഡി കോളേജിലാണ് അതിപ്പം ഇത് കലകളിലൊക്കെ വളരെ ഏറെ മുന്നിൽ നിൽക്കുന്ന അറിയപ്പെടുന്നവരായ വ്യക്തികളെല്ലാം തന്നെ ആലപ്പുഴക്കാരാണ് അതോടൊപ്പം നമ്മുടെ പാർട്ടി പ്രവർത്തകർ അതിൽ ധാരാളം പേർ ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിച്ചവരും അവിടുത്തെ വിദ്യാഭ്യാസം സ്വീകരിച്ച് പാർട്ടിയിൽ ഓരോ സ്ഥാനങ്ങളിലിരുന്ന് വലിയ വലിയ സ്ഥാനങ്ങളിലെത്തിയ പല വ്യക്തിത്വങ്ങളുണ്ട് അതുപോലെതന്നെ തകഴി എന്നു പറയുന്ന സ്ഥലം തകഴി ശിവശങ്കരപിള്ളയുടെ സ്മാരകങ്ങളൊക്കെ ഉള്ളത് തകഴി അത് ആലപ്പുഴ ജില്ലയിലാണ് അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ ധാരാളം പള്ളികൾ അർത്തുങ്കൽ ബസലിക്ക പള്ളി എടത്വ പള്ളികൾ അതെല്ലാം വളരെ പ്രസിദ്ധമായ സ്ഥലം എന്തിന് ജയറാമിൻ്റെ സിനിമയിൽ തന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു പാട്ട് തന്നെ എഴുതിയിരിക്കുന്നത് ആ അമ്പലപ്പുഴ അമ്പലം അറിയപ്പെടുന്ന ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അതേപോലെ ധാരാളം പള്ളികൾ മുസ്ലിം പള്ളികളാവട്ടെ ക്രിസ്ത്യൻ പള്ളികളാവട്ടെ ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ ധാരാളം ഓരോ സ്ഥലത്തും മുക്കിന് മുക്കിന് നമുക്ക് ധാരാളം പള്ളികളും മുസ്ലിം പള്ളികളാകട്ടെ പള്ളികളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലുമൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആ ഓരോ പള്ളികൾക്കാണേലും ആ ഒരു അമ്പലങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും അത് അവിടെ ആയതിൽ ഓരോ ഓരോ കാരണങ്ങളുണ്ട് പഴമക്കാറിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ധാരാളം പള്ളികളാവട്ടെ കലാകാരൻമാരെ വളർത്തി എടുക്കുന്നവരാകട്ടെ പാർട്ടി പ്രവർത്തകരെ വളർത്തി എടുക്കുന്നവരാക്കട്ടെ വിദ്യാഭ്യാസത്തിലാവട്ടെ എല്ലാതരത്തിലും നല്ലപോലെ ആളുകളെ വളർത്തി എടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ വളരെ ഏറെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് തരാൻ ആഗ്രഹിക്കുന്ന വളർത്തി എടുക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലയെന്ന് പറയുന്നത് അറിയപ്പെടുന്ന കുറേ കുറേ സ്മാരകങ്ങളും സ്ഥലങ്ങളും എല്ലാം ആലപ്പുഴയിലുണ്ട് എന്നതിൽ കരുമാടി കുട്ടൻ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾക്കായിട്ടൊക്കെ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളാണ് അപ്പം അത്രയും പ്രസിദ്ധമായ സ്ഥലത്ത് ജീവിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്